പഴയ കാലത്തെ സ്റ്റാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാമ്പുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഴയ സ്റ്റാമ്പുകളൊക്കെ രാജാവിൻ്റെയും ഒക്കെ നല്ല പടങ്ങളൊക്കെ ഉള്ളതായിരുന്നു പിന്നെ അത് എൻ്റെ മക്കളും കൂടി അതുപോലെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്റ്റാമ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് എത്രയാണെന്ന് പറയാനൊന്നും പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നാണയങ്ങൾ നാണ അന്നൊക്കെ പഴയ കാലത്ത് നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ അണ എന്നാണ് പറയണത് അപ്പം അണകൾ കാൽ അണ രണ്ടണ അരയണ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇന്ന് ആ അണയൊക്കെ കൊടുക്കുകയാണേൽ ഇന്ന് നല്ല മൂല്യമുണ്ടെന്നാണ് പറയണത് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്ക് അറിയാമെന്നുള്ളത് ഞാൻ പറയുകയാണ് ഞാൻ ഒരുപാടൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഴയ ആ പിന്നെ അത് കഴിഞ്ഞതിനുശേഷം അഞ്ചു പൈസ പത്തു പൈസ ഈ അണയ്ക്ക് ശേഷം വന്നതാണ് അഞ്ചു പൈസ പത്തു പൈസ ഇരുപത് പൈസയൊക്കെ ഇന്നങ്ങനെയുള്ള ഇതൊന്നുമല്ല ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാനും പറ്റുന്നില്ല ഈ അണ എന്താണെന്നും പൈസ എന്താണെന്നും അറിഞ്ഞുകൂടാ അവർക്കിപ്പോൾ ഒരു രൂപ രണ്ട് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ ഉള്ളതേ അറിയാൻ പറ്റുകയുള്ളൂ ഈ പഴയ നമ്മുടെ പഴയ കാലത്തെ നോട്ടുകളൊക്കെ കൊടുക്കുകയാണേ അണയൊക്കെ കൊടുക്കുകയാണേ ഇപ്പോൾ ഇന്ന് ലക്ഷങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞു പത്രത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്നു പിന്നെ പഴയകാലത്ത് നോട്ട് കൊടുത്താൽ ഏഴായിരം രൂപ വരെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഒരുപാട് നാണയങ്ങളുമുണ്ട് അണകളുമുണ്ട് പിന്നെ സ്റ്റാമ്പുകൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഒത്തിരി സ്റ്റാമ്പുകൾ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് എനിക്ക് എൻ്റെ ഒരു ഹോബിയാണ് സ്റ്റാമ്പ് ശേഖരണം അത് ചെറുതിലെ എനിക്ക് ഉള്ള ഒരു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്റ്റാമ്പ് ശേഖരിക്കാറുണ്ട് അതെനിക്ക് ഒരു പ്രത്യേക ഒരു ഹോബിയായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ മക്കളും അതുപോലെ തന്നെയാണ് എന്നെ കണ്ട് പഠിച്ചതായിരിക്കും അവരെ ഇതുപോലെ തന്നെയാണ് നാണയങ്ങളും സ്റ്റാമ്പുകളും ശേഖരിക്കുന്നുണ്ട്